കാർ ഇപ്പോൾ നമുക്ക് സുസുക്കീൻ്റെ ആണ് പ്രീമിയം ഇപ്പോൾ ഈ ഒരു എയിറ്റ് ലാക്ക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഓൾമോസ്റ്റ് നമുക്ക് സ്വിഫ്റ്റ് ഒക്കെ ആണ് സാർ ആ ഒരു ബഡ്ജറ്റിൽ പെർഫെക്റ്റ് ആയിട്ട് തരാൻ പറ്റുന്ന ഒരു വണ്ടി

ഇപ്പോൾ ലോ ഓപ്ഷനിൽ ആണെങ്കിൽ ഫ്രണ്ട് മാത്രം ആണ് പവർ വിൻഡോ കാര്യങ്ങളും ഉണ്ടാവുക പിന്നെ ബാക്കി എല്ലാം നോർമലി പിന്നെ അലോയിവീൽസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നോർമൽ ഡിസ്ക് ആയിരിക്കും വരുക അത് ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ആണ് വരുക ആ മോഡല് എങ്ങനെ മനസ്സിലായില്ല വണ്ടി ഇ ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആണോ നോക്കുന്നേ സെക്കൻഡ് ആണോ നോക്കുന്നേ സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു പതിമൂന്ന് തൊട്ട് ഉള്ളത് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടുള്ള ഓൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടി ഉണ്ട് അതിന് ഇപ്പോൾ പ പതിമൂന്ന് വണ്ടി ആണെങ്കിൽ മൂന്ന് നാൽപ്പത് ഒക്കെ ആണ് വരുന്നത് ആ സാറ് എവിടെ ആണ് സാർ എവിടെ ആണ് കോഴിക്കോട് എവിടെ ആണ് ഓക്കെ വയനാട് ആണല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ വണ്ടികൾ അവൈലബിൾ ആണ് സാറിൻ്റെ ഈ നമ്പറിൽ ആണോ വാട്ട്സ്ആപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ നമുക്ക് ഇപ്പോൾ ഉള്ള വണ്ടീടെ ഡീറ്റെയിലൊക്കെ ആക്കീട്ട് മോഡലും കിലോമീറ്റർ വൈസും എല്ലാം കൂടെ നോക്കീട്ട് ആ ഓൾമോസ്റ്റ് ഉള്ള വണ്ടികൾ ഞാൻ ഫോട്ടോസ് വിചാരിച്ചിട്ട് വാട്ട്സ്ആപ്പ് ചെയ്തുതരാം സാറ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണ് വേണ്ടത് അത് ഇപ്പോൾ അത് പറഞ്ഞുതരുവാണെങ്കിൽ നമ്മൾ ആ വണ്ടീടെ ബാക്കി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ഇത് ആക്കിത്തെരാം ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് ലക്ഷം രൂപേൻ്റെ നിങ്ങൾ എട്ട് ആണോ ഒമ്പത് ആണോ പറഞ്ഞേ എട്ട് ലക്ഷത്തിന് സെക്കൻഡ് നോക്കുന്നു ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടികൾ നമ്മൾ വേറെ കാണിച്ചുതരാം അപ്പോൾ നോക്കീട്ട് പറഞ്ഞാൽ മതി എന്തായാലും ആ സാറ് ഇവിടെ വെരെ ഒന്ന് വരുന്നതിന് കുഴപ്പം ഒന്നും ഉണ്ടാവില്ലല്ലോ ഷോറൂമിലേക്ക് വരുന്നതിന് പ്രശ്നം ഒന്നും ഇല്ലല്ലോ നമ്മൾ കോഴിക്കോട് ആണ് ബീച്ച് സൈഡ് ആണ് വരുന്നത് ഓക്കെ സാർ എന്തായാലും വരുമ്പോൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം